ഹലോ ഹലോ ഡ്രൈവർ ഞാൻ നേരത്തെ വിളിച്ച അർച്ചനയാണേ ആ ഹോസ്പിറ്റലിന് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ ആ ഞാൻ നേരത്തെ വിളിച്ചത് ആനാട് വരാനാണ് പറഞ്ഞത് ആനാട് ക്ലിനിക്കൽ ഹോസ്പിറ്റലിൽ ആ ആ ഇപ്പോൾ സ്ഥലത്തിന് ചെറിയൊരു മാറ്റമുണ്ട് അത് പറയാനാണ് വിളിച്ചത് ആ ആ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കാർ കിട്ടിയായിരുന്നു അവർ വിതുര ആണ് അപ്പോൾ ഞങ്ങളെ ചുള്ളിമാനൂർ ആക്കിയായിരുന്നു ഓ അപ്പോൾ നിങ്ങൾ ചുള്ളിമാനൂർ വന്നാൽ മതിയാവും ഓ ഇപ്പോൾ എവിടെ എത്തി ആ കരിക്കുഴി ഓ ഓ ആ ഞങ്ങൾ ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക എടുത്തിട്ട് ഇവിടെ നിൽക്കാം ഇല്ല അപ്പുറത്തെ സ്റ്റോപ്പിൽ വന്നാൽ മതി ഞങ്ങളിവിടെ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് ആ അവിടെ വന്നാൽ മതിയാവും ഇല്ല ഇല്ല ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ ആ കുഞ്ഞ് ആ കുഞ്ഞ് ഓട്ടോ മതിയാവും ഓ ഇല്ല ഇല്ല ഇല്ല പെട്ടെന്ന് വരണം കേട്ടോ ഓ ഒരു വയ്യാത്ത ഒരു കുട്ടിയും കൂടെയുണ്ട് ഓ ഓക്കേ ഓക്കേ ആ ആട്ടുകല്ലാണ് ആക്കാനുള്ളത് ആ എസ് എൻ ഡി പിയുടെ അവിടുന്ന് കാണിക്കവഞ്ചിയുടെ അവിടുന്ന് താഴോട്ട് പോവണം ആ റോഡ് നേരെ നേരെ പോയി ആ അവിടെ തന്നെ അവിടെ തന്നെ ആ ഇതിനു മുമ്പ് വന്നായിരുന്നല്ലോ ഓട്ടം വിളിച്ചായിരുന്നു ഞങ്ങൾ ആ അവിടെ വന്നാൽ മതി അവിടെ ആക്കിയാൽ മതി ഓ ശരി ശരി